ഞാൻ അഖിൽ അഖിൽ ആ അത് തന്നെ അത് തന്നെ ആ അഖിൽ കെ തന്നെ അഖിൽ കെ തന്നെ ആ അവൻ ബുക്ക് എടുത്ത് ഇരിക്കുന്ന കാണാം പത്താം ക്ലാസ് ഒക്കെ അല്ലേ നമുക്ക് ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ടല്ലോ പറയുന്നതില് നമ്മൾ അങ്ങനെ ആ അതേ അതേ അതേ അത് ശരിയാണ് നമ്മൾ പറയാറുണ്ട് അവൻ്റെ അടുത്ത് പഠിക്കാൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് മാർക്ക് ഒക്കെ എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോൾ എല്ലാം ആ എല്ലാം പാസ് ആയിന്നൊക്കെ പറഞ്ഞു പിന്നില്ലേ എല്ലാം കാണിച്ചൊക്കെ തന്നിട്ടുണ്ട് നമ്മളുടെ അടുത്ത് കാണിച്ചിട്ടിലെങ്കിലും വൈഫിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ നാട്ടിൽ ഇല്ലാത്തതു കൊണ്ടേ

കണക്കിന് അല്ലേ ആ ആ അതെ അല്ലെ ഓ

അതേ അതെയതെ അതേ അല്ല അവൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതൊക്കെ കാണാറുണ്ട് നമ്മൾ വരുമ്പോൾ ഒക്കെ നേരത്ത് ഇപ്പോൾ ഞാൻ ഒരു ഏഴ് മണിയാവും വീട്ടിൽ എത്താൻ ആ നേരത്തൊക്കെ അവൻ പുസ്തകത്തിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഈ

ആ അപ്പോൾ അവനെ ടൂഷന് വല്ലതും വിടണോ ആ ആ അത് ശരിയാണ് ആ ആ മാഡം എന്നാൽ ഒരു ആ അത് ശരിയാണ് പക്ഷേ നമുക്ക് പക്ഷേ അവൻ ഡൌട്ട് ഉണ്ടെങ്കിലേ ഇപ്പോൾ മാഡത്തിന് ഒരു എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാത്സ് മാഡം തന്നെ എടുക്കുന്ന ആയതുകൊണ്ട് അതെ അല്ലെ ആ അവൻ ആ കുഴപ്പമില്ല ബാക്കിയുള്ള സബ്ജെക്ട് ഒക്കെ നന്നായിട്ടുണ്ട് മാത്സ് മാത്രം കുറവ് എന്ന് പറയുമ്പോഴേ ഒരു ചെറിയ ഇത് മാത്സ് ആകുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഇനി ഇപ്പോൾ ഭാവിയിൽ ഒക്കെ ആയാലും അല്ല അവൻ മാത്സ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ആണ് വീട്ടിൽ ഒക്കെ ചോദിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട് കുഴപ്പമൊന്നുമില്ല ആ അത് ഞാൻ എന്തായാലും നോക്കാം ഇനി ഇപ്പോൾ അടുത്ത എക്സാമിന് ആവുമ്പോഴെക്കും ഞാൻ ഒന്ന് നോക്കിയിട്ട് അത്യാവശ്യം മാത്സ് ഒക്കെ അത്യാവശ്യം അറിയുന്നതാണ് അവന് അപ്പോൾ ഞാൻ എന്തായാലും അതിനെപറ്റി പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ശരി മാഡം ഒക്കെ എന്തായാലും മാഡം അവനോട് ഒരു എക്സ്ട്രാ കെയർ എടുത്തോളൂ മാത്സ് ആവുമ്പോളെ എ ആ ശരി താങ്ക്യൂ